ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ആസ്പത്രിയിൽ കുറച്ച് അടുത്താണെങ്കിലും അവിടെ ആസ്പത്രിയിൽ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ല അടുത്തിവിടെ ഒരു പ്രശ്നങ്ങളുണ്ടായി എന്നു വച്ചാൽ അടുത്തൊരു വീട്ടിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകുവാൻ വേണ്ടി വണ്ടിയെല്ലാം കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആസ്പത്രിയിൽപ്പോയാലും അതുപോലെ മരുന്നുകളും ഒന്നും ഉണ്ടാവില്ല ഗവൺമെൻ്റ് ആസ്പത്രി മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയും അവിടെയാണെങ്കിൽ നമ്മളൊരു ഗ്യാസിൻ്റെ മരുന്നിനു വേണമെങ്കിൽ പുറമെ പോയി ചോദിക്കണം ആശുപത്രിയിൽ അയിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഡോക്ടർമാരും നേഴ്സ്സുമാരെല്ലാം ഇഷ്ടംപോലെയുണ്ട് എല്ലാ തരത്തിലുള്ള പണിക്കാരും അവിടെ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ നമ്മളെ ആവശ്യങ്ങൾക്കൊന്നും ഒരിതും ഇല്ല എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും പുറത്തേയ്ക്കാണ് അവർ എഴുതി തരിക അവിടെ ഹോസ്പിറ്റലിൽ ഒരു മരുന്നുമില്ല പേര് ധർമ്മാസ്പത്രി എന്നാണ് പക്ഷെയെങ്കിൽ അവിടെ നമുക്ക് ഒരാവശ്യത്തിനും ധർമ്മം ധർമ്മം മരുന്നൊന്നും കിട്ടുന്നില്ല നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ മരുന്ന് കിട്ടുള്ളു ഇല്ലെങ്കിൽ ഒരു മരുന്നും ഉണ്ടാവില്ല ഞങ്ങൾ അവിടെ കിടത്തിയാൽത്തന്നെ അവിടെ ചികിത്സയോ അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആശുപത്രിയികൾ പ്രത്യേകതകൾ